എനിക്ക് ഒരു ബ്ലൗ ഒരു ഒരു പ്രാവശ്യം തയ്ച്ചപ്പോഴത്തേയ്ക്ക് ഒരു നമ്മൾ നമ്മളെ വിശ്വസിച്ചാണ് അവർ നമുക്ക് തന്നത് നമ്മുടേൽ ഏൽപ്പിച്ചത് തയ്ക്കാനായിട്ട് നമ്മൾ ഒരു കല്യാണ പരിപാടിടെ ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ട് അവർ നമ്മളത് എന്നു വെച്ച നല്ല രീതിയിൽ ചെയ്തോണ്ടാണ് ഇരുന്നത് പക്ഷേ അത് എന്തോ ഒരു ഇച്ചിരി ഒരു പിഴവ് പറ്റി അത് ബ്ലൗസിൻ്റെ കഴുത്തുവശം ഇച്ചിരി അത് കല്ല് പിടിപ്പിച്ചൊക്കെ വെക്കണമായിരുന്നു അത് ഇച്ചിരി ഇച്ചിരിയൊരു പിഴവ് പോലെ സംഭവിച്ചു അത് പിന്നെ ഞാനത് ചെയ്ത് തന്നത് നല്ല രീതി ചെയ്തുതന്നോളന്നൊക്കെ പറഞ്ഞു അവർക്കത് അവർ ആദ്യമത് അവർക്കൊരു വിഷമമായിപ്പോയി ഞാൻ നിങ്ങളെ വിശ്വസിച്ചു തന്നല്ലോന്നവർക്ക് പക്ഷേ അത്കഴിഞ്ഞു നമ്മൾ അത് ഒരുദിവസം മുഴുവൻ അതിന് വേണ്ടി സമയമെടുത്ത് നല്ല രീതിലത് മിക്സ് ചെയ്യാനായിട്ടെനിക്ക് സാധിച്ചത് വീട്ടിലെ പണിയൊക്കെയാണേലും നമ്മൾ എല്ലാം നേരത്തെയൊക്കെത്തന്നെ അതിന് അതനുസരിച്ച് ചെയ്തു ചെയ്തു വെച്ചതിന് ശേഷം ഇതിനുവേണ്ടി മാത്രം മാത്രം മാറ്റിവെച്ചു നല്ല രീതിയിലത് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചത് അത് അതിന് കല്ലു പിടിപ്പിക്കാനായിട്ടുള്ളത് അതൊരു അത് ഇച്ചിരിയത് ബുദ്ധിമുട്ടായിപ്പോയി അതിപ്പോൾ അത് വേറൊരുമാതിരിയായിപ്പോയി അതിപ്പോൾ പിന്നെ അത് ഞാനത് നല്ല രീതിയിൽ സമയമെടുത്തത് ചെയ്ത് അതായത് അത് വൈകുന്നേരം സമയത്തിനു മുന്നായിട്ടത് കൊടുത്തു കൊടുത്തു വൈകിട്ട് തന്നെ കൊടുത്തു ഇതേതത് അവർക്കത് നല്ല രീതിയിൽ ചെയ്ത് ചെയ്ത് ചെയ്തവർക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു നല്ല രീതിയിൽ നമ്മൾ സമയമെടുത്തെങ്കിലും അങ്ങനെയൊരു ബാ പിഴവ് വന്നെങ്കിലും നമ്മളത് അത് വേണ്ടാന്ന് മാറ്റിവെച്ചില്ല എങ്കിലും നല്ല രീതിയിൽ ഞാൻ അതിനുവേണ്ടി അതിനുവേണ്ടി തന്നെയായിട്ട് മാറ്റിവെച്ച് അവർക്ക് നല്ലൊരു പരിപാടിയ്ക്ക് വേണ്ടി തന്നത് തന്നതല്ലേ എന്നു വിചാരിച്ചു നല്ല രീതിയിൽ നമ്മളത് സമയം അതിനുവേണ്ടി മാറ്റിവെച്ച് നല്ല രീതിയിൽ അത് ചെയ്ത് അങ്ങനെ നല്ല നല്ല രീതിയിൽ അത് ചെയ്തെടുക്കാൻ സാധിച്ചു അങ്ങനെ അവർക്കത് കൊടുത്തപ്പോഴ്ത്തേന് അവർക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു സമയെടുത്താണേലും അത് നല്ല രീതിയിലത് ചെയ്യാൻ പറ്റിയല്ലോ അത് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിലത് ചെയ്തല്ലോ എന്നവർ പ്രത്യേകം പറഞ്ഞു നമ്മളെയത് ഇതാക്കി നമ്മൾ അ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് മാറിപ്പോയി കുഴപ്പം അത് നഷ്ട്ടപ്പെട്ടുന്നുള്ളതിൽ നമ്മൾ മാറി നിൽക്കാതെ അതിൽ നമ്മൾ ഇതിനെ എതിർത്ത് എന്ത് നല്ല രീതിയിലത് ചെയ്ത് എങ്ങനെയെങ്കിലും അത് നല്ല രീതിയിലവർക്ക് ഇടെണ്ടതാണെല്ലോ എന്നു വിചാരിച്ചു നല്ല രീതിയിലത് സമയമെടുത്താണെലും ചെയ്ത് കൊടുക്കാമെന്നതനുസരിച്ച് നമ്മളതനുസരിച്ച് ചെയ്ത് കൊടുത്ത് അങ്ങനെ നമ്മൾ പുറകോട്ട് മാറിയില്ല നല്ല രീതിയിലത് ചെയ്തു കൊടുത്തവർക്ക് നല്ല രീതിയിലത് ഇടാനായിട്ട് സാധിച്ചു അവരിതപ്പം അവർക്കതൊത്തിരി സന്തോഷമാകുകയും ചെയ്തു